ചേട്ടാ വരൂ നമസ്കാരം അതെ അതെ ആ ഓക്കെ പൂവോ സാധാരണ ഏതൊക്കെ ഇപ്പോൾ നിങ്ങൾ ഏതൊക്കെ പൂവാണ് ഉദ്ദേശിക്കുന്നത് ആ ഓക്കെ ആ രണ്ട് സെറ്റ് അല്ലെ രണ്ട് സെറ്റ് ആണോ അതോ റിസപ്ഷന് വേറെ വേണോ കല്ല്യാണത്തിന് മാത്രം അല്ലെ അപ്പോൾ ഒരു തുളസി മതി പിന്ന എക്സ്ട്രാ ഒരു സെറ്റ് വേറെ മതി അല്ലെ ആ ഓക്കെ റോസിൻ്റ അണല്ലേ ബൊക്ക ഓക്കെ ശരി ശരി അത് റോസ് കളർ വേണോ മഞ്ഞ കളർ വേണോ ചെറുത് വേണോ വലുത് വേണോ ഏതാണ് വേണ്ടത് റോസ് അതിൽ ചെറുത് ചെറിയത് മതിയോ അതോ വലുപ്പം കൂടുതൽ വേണോ

പിന്നെ എന്താണ് വേണ്ടത് ആ വണ്ടീയിലേക്ക് ഇത് വേണ്ടി വരും അല്ലെ ആ മനസ്സിലായി ആ ആർച്ച് ആർച്ച് ആർച്ച് ആർച്ച് ആ മനസ്സിലായി മനസ്സിലായി ഓക്കെ ആ അതായത് നമ്മൾ ഉണ്ടാക്കിത്തരണോ അതോ നിങ്ങൾ അത് ഉണ്ടാക്കീട്ട് പൂ പോലെ നിങ്ങൾ ഉണ്ടാക്കുമോ പൂ തന്നാൽ എന്താണ് ചെയ്യേണ്ടത് ആ അപ്പോൾ ആ വേറെ എന്തെങ്കിലും വണ്ടി അലങ്കരിക്കാൻ ഉണ്ടോ വണ്ടി വണ്ടി അലങ്കരിക്കാൻ ഉണ്ടോ കല്ല്യാണവണ്ടി മണ്ഡപത്തിനു മാത്രമെ ഉള്ളൂ കല്ല്യാണ വണ്ടി ഇല്ല അല്ലെ ഇല്ല നമ്മൾ സാധാരണ കല്ല്യാണ വണ്ടിയും കൂടി ചെയ്തു കൊടുക്കാറുണ്ട് ഇതിന് നമ്മൾ ഒരു മൊത്തത്തിൽ ഒരു പാക്കേജ് പാക്കേജ് ആയിട്ടാണ് എടുക്കണത് ആ അപ്പോൾ വണ്ടി അതില് ഉൾപ്പെടുന്നതാണ് ആ ഇപ്പോൾ നമുക്ക് അതില് ചെയ്യാൻ പറ്റണത് എന്താണെന്ന് വച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മണ്ഡപം വേണം ബൊക്കെ വേണം പിന്ന എറിയാൻ ഉള്ള മറ്റെ അവർക്ക് ലാസ്റ്റ് ഈ കല്ല്യാണത്തിന് താലി കെട്ടണ സമയത്ത് എറിയാൻ ഉള്ള പൂ വേണോ

ആ ഓക്കെ അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു കല്ല്യാണത്തിന് ഏകദേശം ചിലവ് വരുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു നാല്പത് കിലോ ജമന്തി മഞ്ഞ ചെണ്ടുമല്ലി വരുന്നുണ്ട് ഒരു നാല്പത് കിലോ എല്ലാം ഒരു നാല്പത് നാല്പത്തിയഞ്ച് കിലോ വച്ചിട്ട് ആണ് നമ്മൾക്ക് ഏകദേശം വരുന്നത് അല്ല നമ്മൾ അത് അവിട വന്നു ചെയ്ത് തരാം പ്രശ്നം ഇല്ല നമ്മൾ അത് എന്തായാലും മാക്സിമം നമ്മുടെ വർക്ക് വർക്കിന്റെ ഫോട്ടോസ് ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം അതിൽ ഏതാണ് ഡിസൈൻ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉള്ളത് ചൂസ് ചെയ്താൽമതി നമ്മൾ അത് രാത്രിതന്നെ വന്നിട്ട് അതു മുഴുവൻ സെറ്റ് ചെയ്ത് തരാം അവിടെ തലേദിവസം വന്നിട്ട് അതും ഇപ്പോൾ നമ്മൾ മൊത്തം അതായത് വണ്ടി ഉൾപ്പെടെ എടുക്കണമെന്ന് പറയുമ്പോൾ നാല്പത്തെട്ടെ അഞ്ഞൂറ് ആണ് വരുന്നത് അതിൽ ആ അതായത് ഒരു കാർ ഒരു ബസ്സ് മണ്ഡപം ആ അവർക്ക് ഉള്ള മാല എറിയാൻ ഉള്ള പൂവ് പിന്നെ ബൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കയറി വരുന്ന സമയത്ത് അലങ്കരിക്കാനും എല്ലാ എല്ലാം കൂടിയിട്ട് ആണ് നാല്പത്തഞ്ചെ അഞ്ഞൂറ് വരുന്നത് ആ അപ്പോൾ മറ്റെ ഇരുപതാം തീയതി അല്ലെ പറഞ്ഞത് ആ അപ്പോൾ അടുത്ത മാസം പതിനഞ്ചാം തീയതി വന്നിട്ട് ഒന്ന് മറ്റെ ഇവിടെ ബുക്ക് ചെയ്തിട്ട് പോകണം ആ അപ്പോൾ അന്ന് വരുമ്പോൾ വരുന്ന സമയത്ത് ഒരു പതിനഞ്ച് എണ്ണൂറ് ഇവിടെ അടയ്ക്കണം

ആ ഓക്കെ അപ്പോൾ ഇതു പിന്നെ ഡിസൈൻ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ അയച്ചുതരാം നിങ്ങൾ അത് ഏതൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് എനിക്ക് ഇന്നോ നാളയോ ആയിട്ട് തിരിച്ച് മെസ്സേജ് അല്ല അല്ലെങ്കിൽ അന്ന് വരുമ്പോൾ ഒന്നു മെസ്സേജ് അയച്ചാലും മതി വരുമ്പോൾ കൊണ്ടുവന്നാലും മതി ഏതാണ് കൺഫേം ആക്കിയിട്ട് ഇപ്പോൾ വീട്ടിൽ ചോദിച്ചിട്ട് അന്നു വരുമ്പോൾ ആ ഡിസൈൻ കൺഫേം ആയി പറഞ്ഞാൽ മതി ഓക്കെ താങ്ക് യു ആ ശരി ശരി ശരി പോയിട്ട് വരൂ